ആ ഞാൻ എഫ് എ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് ഇത് മീയയുടെ പേരൻ്റ് ആണോ നിങ്ങടെ കുട്ടിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു പിന്നെ അത് വീട്ടിൽ വന്നു നിങ്ങൾ വല്ലതും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ പക്ഷെ അത് കുട്ടി ക്ലാസ്സിൽ വന്നാൽ ഭയങ്കര ഇതാണല്ലോ ഒരു അച്ചടക്കമില്ല മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറണ്ടത് എന്ന് അറിയത്തില്ല ഒരു ഭയങ്കര ഇതാണ് മിസ്സ്മാരോടൊക്കെ ആണെങ്കിൽ ഒരു ഇതില്ലാതെ ഒക്കെയാണ് സംസാരിക്കുന്നത് ഒരു ഒരു റെസ്പെക്ട് ഒന്നും കൊടുക്കുന്നില്ല അതെന്താണ് അങ്ങനെ വന്നത് നിങ്ങളുടെ വീട്ടിലേ രീതികളാണോ അതോ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ ഇത് കൂടെയുള്ള കുട്ടികളോട് പോലും ഒരു ഇതില്ലാതെ ആണ് സംസാരിക്കുന്നതൊക്കെ ദേഷ്യമാണ് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇങ്ങോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതാണ് ചോദിച്ചത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണോ കുട്ടി ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് അത് നിങ്ങൾ ഇവിടം വരെ ഒന്ന് വരണം അവരുടെ ക്ലാസ് ടീച്ചറെയൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്യണം ക്ലാസ് ടീ ച്ചറിനെ കാണണം പിന്നെ ഇംഗ്ലീഷും മാത്സൊക്കെ പഠിക്കും പഠിപ്പിക്കുന്ന മിസ് ആ അവരുടെ മിസ്സുമാരെയൊക്കെ ഒന്ന് കാണണം അവരുടെ അവർ പറയുന്നത് കൂടെ കേൾക്കണം ആ പിന്നെ ഇവിടെ അവരുടെ നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഉള്ള കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് ഈ ഈ അല്ല ഇനി കുട്ടികളുടെ രീതിയിൽ നിന്ന് വരുന്നത് ഇതും കൊണ്ടാണോ ഈ ഈ കുട്ടി ഇങ്ങനെ പെരുമാറുന്നത് അറിയാനാണ് ചോദിച്ചത് ഓക്കെ എങ്കിലും ഒന്ന് ഇവിടം വരെയൊന്ന് വരണം കേട്ടോ ആ ആ ആ ശരിയെന്നാൽ ഓക്കെ